അതെ അതെ സാര് പറഞ്ഞുകൊള്ളൂ ആ ഓക്കെ ഓക്കെ എത്ര വൺ ഡേ ആണോ ആ ഓക്കെ ഓക്കെ അതില് ആ ഫുഡും കാര്യങ്ങളുമൊക്കെ പ്രൊവൈഡ് ചെയ്യും ഡെയിലി ഈ ഇൻകം അതായത് അന്നന്ന് ദിവസത്തെ പൈസ അന്നുതന്നെ വേണ്ടി വരും ആ അങ്ങനെ അങ്ങനെയാണ് ഒരു ടെൻ ഡേയ്സിനുള്ളിൽ നമുക്കെല്ലാം കവർ ചെയ്യാം മലപ്പുറമുള്ള ഏകദേശമുള്ള പ്ലേസുകളൊക്കെ വാഹനങ്ങള് നിങ്ങളെത്ര പേരാണുള്ളത് നാല് പേര് എന്നാല് നമുക്ക് ഒരു സ്വിഫ്റ്റില് പോകാവുന്നതേയുള്ളൂ കാറില് ഡ്രൈവര് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങളുടെ ഏജൻസിയിൽ നിന്നുണ്ടാകും ആ ഞങ്ങളുടെ ആ ഡ്രൈവർ തന്നെയായിരിക്കും ഗെയ്ഡ് നമ്മള് പ്ലേസസ് ഒക്കെ പോകുമ്പോള് ആ പ്ലേസിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ധാരണയും എല്ലാ കാര്യങ്ങളും ഡ്രൈവര് തന്നെ പറഞ്ഞുതരും നിങ്ങൾക്ക് ഗൈഡായിട്ട് ആ ഏകദേശം പ്ലേസിലൊക്കെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചില പ്ലേസിന് അതിന്റേതായ ചിലപ്പോള് രീതികളുണ്ടാകും അവിടെനിന്ന് ചിലപ്പോള് നമ്മള് മാറ്റേണ്ടി വരും അവിടെനിന്ന് നമുക്കുള്ള ഡ്രസ് തരും അവിടെനിന്ന് സെപ്രേറ്റായിട്ട് നമുക്ക് തരും ആ ടിക്കറ്റ് നമ്മള് തന്നെ എടുക്കേണ്ടിവരും ഞങ്ങള് ട്രാവല് മാത്രമേ ഇതാക്കുകയുള്ളൂ പാക്കേജ് മാത്രം ടിക്കറ്റ് നമ്മള് എടുക്കേണ്ടിവരും ആ അതൊക്കെ എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ